ഞാനൊരു കുർത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു മീശോയിൽ നിന്നാണ് വാങ്ങിയത് മുന്നൂറ് രൂപ എങ്ങാനും കണ്ടപ്പോൾ നന്നായിട്ടിഷ്ടമായി നല്ലൊരു റെഡും ബ്ലൂവും ചേർന്നൊര് കളറായിരുന്നു നന്നായിട്ടിഷ്ടമായി അങ്ങനെ മേടിച്ചതായിരുന്നു പക്ഷെ ഞാൻ അതിട്ടിട്ട് ഒരു കല്ല്യാണത്തിന് പോയി അവിടുന്നെൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ദീപേ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതെവിടുന്നാണ് മേടിച്ചത് ഇതിനെത്രയായി ആയിരം രൂപ ഒക്കെ ഇതിനെത്ര ആയീ എന്നവര് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞു ഇതിനൊരായിരായി എന്ന് അപ്പോൾ അത്ര ആയുള്ളൂന്നവര് ചോദിച്ചു അത്രയും കാഴ്ചക്ക് നല്ലതായിരുന്നു അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയായിക്കോട്ടെ എല്ലാം നല്ല മെറ്റീരിയലായിരുന്നു ഞാൻ അതിട്ട് തിരിച്ച് പോയൊക്കെ ചെയ്തു തിരിച്ച് പോവുന്നു ഞാൻ അതിവിടെ എടുത്ത് വെച്ചു ഒര് പ്രാവശ്യം കഴുകി നോക്കി അപ്പോൾ നല്ല തു മെറ്റീരിയലാണ് ഒര് കുഴപ്പവും ഇല്ല നന്നായിട്ട് അത് നമക്കുപയോഗിക്കാൻ പറ്റി അപ്പോൾ മീശോയിൽ നിന്നാണ് ഞാൻ അത് വാങ്ങിച്ചത് നമ്മള് കാഴ്ചയ്ക്ക് അത്ര വെ ഇത് തോന്നിയിട്ടില്ലെങ്കിലും നല്ല ഡ്രസ്സായിരുന്നു ഞാന് ഒന്ന് രണ്ട് പ്രാവശ്യം അലക്കി നോക്കി പക്ഷെ അലക്കി നോക്കിയപ്പഴും തന്നെ ആ മെറ്റീരിയലിനൊര് മാറ്റം ഇല്ല വെച്ചാൽ അങ്ങനെ ചുരുങ്ങി പോവുന്ന തുണിയോ ഒന്നും അല്ല നല്ല കോട്ടൺ നല്ല കോ പ്യുവർ കോട്ടൻ്റെ നല്ലൊര് തുണിയാരുന്നു അയേൺ ചെയ്ത് നോക്കി അപ്പഴൊക്കെ നല്ലതായിരുന്നു കളർ ഇളകുന്നില്ല നമുക്ക് നല്ലൊരു ക്വാളിറ്റി തുണിയായിട്ടത് തോന്നിയത്